ഹലോ പി എച്ച് മാനന്തവാടി ഹോസ്പിറ്റൽ അല്ലേ എനിക്ക് രണ്ട് ദിവസമായി പനി തുടങ്ങിയിട്ട് ആ പനിയാണ് തലവേദന ഉണ്ട് തലവേദന ഉണ്ട് ഇല്ല കഴിച്ചില്ല ഇല്ല ഇല്ല ഹോസ്പിറ്റലില് പോയിട്ടില്ല ഒരു രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ഇല്ല കുറവില്ല ഇല്ല വീട്ടില് എനിക്ക് മാത്രമെ ഉള്ളൂ ഇല്ല ഗുളികയൊന്നും കഴിച്ചിട്ടില്ല പാരസിറ്റമോള് ആ പാരസിറ്റമോൾ ഉണ്ട്

ആ ഹോസ്പിറ്റലില് വരാം വയറുവേദന ഉണ്ട് ചെറുങ്ങനെ

ആ മഴ നനഞ്ഞിരുന്നു ഇല്ല പുറത്ത് നിന്ന് ഫുഡ് അങ്ങനെ കഴിക്കലില്ല

നാളെ വരാം ആ ബുക്ക് ചെയ്യണം

സ്ഥലം മാനന്തവാടി ആ അ പഞ്ചായത്ത് തന്നെ ഏജ് പതിനെട്ട് എത്ര മണിവരെ ഉണ്ട്

ആ ബുക്ക് ചെയ്യാം

ആ പതിനൊന്ന് മണി അല്ലേ ആ പാരസിറ്റമോള് നോക്കിയിട്ട് പറയാം